ഞാൻ ഒരു യാത്രക്കാരി എന്ന നിലക്ക് ടോയ്ലെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് കൂടി ചെല്ലുമ്പോഴും ടോയ്ലറ്റ് സൗകര്യമല്ല പിന്നെ പെട്രോൾ പമ്പിൽ ഒക്കെ കയറിയാൽ തന്നെ ചില പമ്പിൽ അടച്ചിട്ടുണ്ടാകും പൂട്ടിയിട്ട രീതിയിലാകും ചിലപ്പോൾ വൃത്തി ഉണ്ടാകില്ല ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടിവരും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഭക്ഷണകാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കയറിയപ്പോൾ അവിടെ സ് ഒന്നുമില്ല സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അതിൽ ആ ഹോട്ടൽക്കാരൻ പറഞ്ഞു കുറച്ച് അപ്പുറത്തുണ്ട് എന്നു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു വണ്ടിയൊക്കെ വിളിച്ച് ഹോട്ടൽ കയറിയപ്പം സാധാ ചോറും അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ബിരിയാണി പോലത്തേതും ഞങ്ങൾ ഒരു അഞ്ചാറ് എട്ടു പത്ത് ആൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള അത്ര ഭക്ഷണം അവിടെ ഇല്ല എന്നാലും ഞങ്ങൾ രണ്ടാൾ കഴിക്കണതൊക്കെ പിന്നെ അങ്ങനെ മൂന്നും നാലും ഒക്കെ പേരാക്കി അങ്ങോട്ട് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അത് അ അത്രയും എന്താ വിശപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമ്മൾ യാത്ര ചെയ്താലും അങ്ങനെയൊരു സൗകര്യവും കാര്യങ്ങളൊ ഒന്നും നമുക്കില്ല ഹോട്ടലിൽ ചെന്നാലോ എവിടെ ചെന്നാലും ഇല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ വളരെ പ്രയാസത്തിലാണ്